ഇന്നത്തെ കാലത്ത് ഉല്പന്നങ്ങളുടെയും വ്യവസായങ്ങളുടെയും വളർച്ചയിൽ ഒരു പ്രധാന പങ്ക് വഹിയ്ക്കുന്നത് പരസ്യങ്ങള് തന്നെയാണ് പരസ്യങ്ങൾ കണ്ടിട്ടാണ് നമ്മൾ എല്ലാ സാധനങ്ങളും വാങ്ങുന്നത് പരസ്യങ്ങൾ കുറേ തരത്തിലുണ്ട് ടി വിയിൽ പരസ്യമുണ്ട് പോസ്റ്റർ പരസ്യമുണ്ട് ഫ്ലെക്സ് വഴി പരസ്യമുണ്ട് അതല്ലാതെ ഫോണിൽ ഇൻസ്റ്റാഗ്രാം വഴി പരസ്യങ്ങൾ ചെയ്യാറുണ്ട് അപ്പോൾ ഇതെല്ലാം കണ്ടിട്ടാണ് നമ്മൾ പ്രൊഡക്റ്റ്സ് എല്ലാം വാങ്ങുന്നത് ഇപ്പോൾ ഞാൻ ആണെങ്കിൽ തന്നെ ഒരു സാധനം വാങ്ങുമ്പോൾ നല്ല സാധനമാണോ അതിൻ്റെ റിവ്യൂ എല്ലാം നോക്കിയിട്ടാണ് വാങ്ങുന്നത് അപ്പോൾ പരസ്യങ്ങൾ കാരണം ആണ് കൂടുതലായി ഉൽപന്നങ്ങൾ ആൾക്കാർ വാങ്ങിക്കുന്നത് പിന്നീട് പറയുമ്പം പരസ്യങ്ങൾ ഒ നല്ല വശങ്ങൾ മാത്രമേ പ്രൊഡക്ട്സിന്റെ കാണിക്കാറുള്ളൂ അതിൻ്റെ ചീത്ത വശങ്ങളുമുണ്ട് ഇൻസ്റ്റാഗ്രാം വഴി ആണങ്കിലും ഒട്ടുമിക്ക ആൾക്കാർ കൊളാബ്രേറ്റ് ഒക്കെ ചെയ്തിട്ട് ഒരുപോ ഒരുപാടാൾക്കാരിലേക്ക് അങ്ങനെ പരസ്യങ്ങൾ എത്തുന്നുണ്ട് ടി വിയിലെ പരസ്യമായിക്കോട്ടെ കുട്ടികൾക്കെല്ലാം പരസ്യങ്ങൾ കാണാനായിട്ടും വലിയ ഇഷ്ടമാണ് അപ്പം അതുകൊണ്ടു തന്നെ എല്ലാ പരസ്യങ്ങളും എല്ലാവരും കാണുകയും ചെയ്യും അതുവെച്ചിട്ടാണ് എല്ലാ സാധനങ്ങളും വാങ്ങിക്കുന്നത് പരസ്യങ്ങളിൽ ഇൻട്രസ്റ്റിങ് ഭയങ്കര ഇൻട്രസ്റ്റിങ് ആണ് നമുക്ക് കാണാൻ തോന്നും അപ്പം ആ സാധനം പരസ്യം കാണുമ്പോൾ ഓരോ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ടാണെങ്കിലും നമുക്ക് തോന്നും ഇപ്പം ജുവലറീസിൻ്റെ പരസ്യമായിക്കോട്ടെ അല്ലെങ്കിൽ ബേബി പ്രൊഡക്റ്റ്സിൻറെ പരസ്യമായിക്കോട്ടെ ഏത് പരസ്യമാണെങ്കിലും നമ്മൾ അത് കണ്ടിട്ടുണ്ടെങ്കിൽ ആണ് നമ്മൾ പ്രൊഡക്റ്റ്സ് വാങ്ങാനായിട്ട് കുറച്ചു കൂടെയും കിട്ടുന്നത് അപ്പം പരസ്യങ്ങൾക്ക് തന്നെയാണ് ഒരു ഉൽപ്പന്നത്തിൻ്റെ വളർച്ചയിൽ കൂടുതൽ പങ്കുള്ളത് ടി വിയിലെ പരസ്യമായിക്കോട്ടെ ടി വിയിലെ പരസ്യമാണ് എല്ലാരിലേക്കും കൂടുതലായിട്ടും എത്തുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയാസ് ആണ് ഇന്നത്തെ സമൂഹത്തിൽ എല്ലാവരും യൂസ് ചെയ്യുന്നത് പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഓൺലൈൻ വഴി പ്രൊഡക്റ്റ്സ് വാങ്ങിക്കുന്നവരാണ് കൂടുതൽ ആൾക്കാരും അപ്പം എല്ലാ മീഡിയാസ് വഴിയും പരസ്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് പ്രൊഡക്റ്റ്സ് വളരുന്നത്